നീന്തുന്ന സമയത്ത് ഒരുപാട് വെല്ലുവിളികൾ ഏർപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മൾക്ക് ആരോഗ്യത്തിന് ശരീരം ശരീരത്തിന് ആരോഗ്യം ആരോഗ്യത്തിന് അല്ല ശരീരത്തിന് ആരോഗ്യമില്ലാത്തത് കൊണ്ട് നമ്മൾക്ക് നല്ല പോലെ നീന്താൻ കഴിഞ്ഞിട്ടില്ല അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് തടസ്സങ്ങൾ രൂക്ഷമായ തിരമാലകൾ തിരമാലകൾ തിര ഞാൻ കടലിൽ അങ്ങനെ നീന്തിയിട്ടില്ല പക്ഷേ മീനുകളുടെ ശല്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ നീന്തൽ കുളം മറന്നു പോയി പകുതി വച്ച് നമുക്ക് പകുതി വച്ച് അവിടെ നീന്തലിൻ്റെ എത്താറായി നമ്മളുടെ ശരീരത്തിൻ്റെ വേദന കാരണം നമ്മൾ മുങ്ങിപ്പോവുക പിന്നെ കുഴി അറിയാതെ സ്ഥലത്ത് നിന്ന് ചാടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ കുളങ്ങൾ അടച്ചിടുക അപ്പം നമക്ക് നീന്താൻ പറ്റാണ്ട് നമ്മള് ആരും അറിയാതെ മ്മള് നീന്തുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നീന്തലിൻ്റെ ഭാഗമായി നമുക്ക് ഉണ്ടായിട്ടുണ്ട്